ആ ഹലോ ആ അതേയല്ലോ സ്കൂട്ടി ആ ആ അപ്പോൾ ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് നമുക്കിപ്പോൾ അമ്പതിനായിരം രൂപ തൊട്ട് ഉണ്ട് സ്റ്റാർട്ടിങ്ങ് ആ അപ്പം ഏതാണ് മാം നോക്കുന്നത് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ ആണല്ലേ ആ

ഫസ്റ്റ് നമുക്ക് ഒരു അമ്പതിനായിരം തൊട്ടാ തുടങ്ങുന്നത് ഫസ്റ്റ് അപ്പം ഇതുണ്ട് ഓഫറായിട്ടുണ്ടേ ഓണം വരുന്നുണ്ട് അപ്പം ഓണത്തിൻ്റെ ഓഫർ ഇപ്പം എടുക്കാൻ വേണ്ടിയാണോ അതോ ആണല്ലേ അപ്പോൾ കളറൊക്കെ ഒന്ന് ഏതാ അപ്പം സ്കൂട്ടി റെഡ് അല്ലേ ആ ഹാ ഹാ അപ്പം എങ്ങനെ ഇ എം ഐ ഇൻസ്റ്റാൾമെൻറ് ഉണ്ട് ആയിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ ആ മൈലേജ് നാൽപ്പത് നാൽപ്പത് അമ്പത് അത്രയും ഉണ്ട് മൈലേജ് ഹലോ ആ ആ പറഞ്ഞോളൂ എന്നാൽ ഓക്കെ ഓക്കെ മാം നമുക്ക് നാൽപ്പത് അമ്പത് ഒക്കെ മൈലേജ് ഉണ്ട് ആ ആ ആ ആ അപ്പോൾ എങ്ങനെയാ ഹലോ അപ്പം അപ്പം നേരിട്ട് അപ്പം ഷോറൂമിലേക്ക് പോരെ പോന്നിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി നമുക്കപ്പം നമ്മുടെ ആധാർ കാർഡും പിന്നെ നമ്മുടെ പാസ്ബുക്കും അതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പം ഈ ശോറൂമിൽ വരണം പിന്നെ നമ്മൾ ഇച്ചിരി പിന്നെ കുറച്ച് പൈസയും കൂടെ അടയ്ക്കണം ആദ്യം തന്നെ ഇപ്പം കഴിഞ്ഞ ഏകദേശം ഒരു കയ്യിലുള്ള ഒരു പത്ത് ഇരുപതിനായിരം രൂപയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇ എം ഐ എടുത്തല്ലേ എടുക്കുന്നത് അപ്പം മാസം മാസം പിന്നെ അടവിൽ പിടിച്ചോളും ആ ആ

അങ്ങനെ ഇല്ലില്ല അങ്ങനെ കംപ്ലയിൻറ് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ വന്ന് നമ്മൾ നോക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത് വേറെ കംപ്ലൈയിൻറ് അങ്ങനെയൊന്നും ഇല്ല ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം കളർ തന്നെ കിട്ടാൻ ആ ഉണ്ട് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ വന്ന് വേറെ വല്ലതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും എടുക്കാം ആ എങ്കിൽ ഓക്കെ മാം എങ്കിൽ ശോറൂമിൽ വന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യൂ മാം ഓക്കെ ആ